ഈ സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകളൊക്കെ ശേഖരിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസ മൂല്യമെന്ന് പറഞ്ഞാല് അങ്ങനെ ഉള്ളതൊക്കെ എടുത്ത് വച്ചിട്ട് നമ്മള് പ്രദർശനമൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെയുണ്ട് നമ്മളിപ്പം സ്കൂളില് പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ കുട്ടികൾക്കുണ്ടാവും ഇങ്ങനെ ഒരു കുട്ടിക്കിപ്പം സ്റ്റാമ്പ് കളക്ഷന്ണ്ടാവും വേറൊരു കുട്ടിക്ക് നാണയം ചില കുട്ടികൾക്ക് കല്ല്കള് കല്ല്കൾന്ന് പറഞ്ഞാല് പല ആകൃതിയിലുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെയുണ്ടാകും ചിലതില് ആ ചില കല്ലുകളില് അവര് കട്ട് ചെയ്തിട്ടക്കെ കല്ലൊക്കെ ഷേയ്പ്പൊക്കെ ആക്കീട്ട് അതിലെന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടോ ഇല്ലങ്കില് എന്തേലും പിക്ച്ചേഴ്സക്കെ വരച്ചിട്ടൊക്കെ വെക്കാറുണ്ട് പിന്നെ ഇപ്പം കല്ലുകളില് കുറെ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവരക്കെയുണ്ട് കല്ലുകളില് അവരുടെ പേര് എഴുതുക പിന്നെ അല്ലെങ്കില് ദൈവത്തിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വയ്ക്കുക ഓം അങ്ങനേയുള്ള എന്തെങ്കിലൊക്കെ പദങ്ങളൊക്കെ എഴുതി വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരക്കെയുണ്ട് അതൊക്കെ പ്രദർശനത്തിന് വെക്കുമ്പഴാണ് കാണാൻ രസങ്ങളൊക്കുള്ളത് നാണയങ്ങളും അതേപോലെ തന്നെയാണ് ഈ നാണയങ്ങൾന്ന് പറഞ്ഞാല് രണ്ട് രൂപൻ്റെയോ ഇപ്പം ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അങ്ങനെയൊക്കെയുള്ള നാണയങ്ങളാണ് എന്നാൽ ആദ്യമെന്ന് പറഞ്ഞാല് അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ അങ്ങനേയുള്ള പൈസകളൊക്കെ ആയിരുന്നു ഇപ്പോന്ന് പറഞ്ഞാൽ ആരിൻ്റെ കയ്യിലും അങ്ങനെ ഒന്നും കാണാറൊന്നും ഇല്ല